എനിക്കിപ്പം ഫോണിനെ കുറിച്ച് പറയുവാണെങ്കില് നല്ലൊരു അഭിപ്രായമാണ് ഫോണിനെ കുറിച്ച് എന്താണ് ഈ കാലത്ത് എല്ലാ ഫോണുണ്ട് ഫോണില്ലാത്ത ഒരു മനുഷ്യന് മനുഷ്യനില്ല ഇവിടെ ഈ കാലത്ത് അപ്പോൾ ഫോണില് വന്നാൽ നമുക്ക് ഇപ്പോൾ എന്ത് കാര്യങ്ങളും നമുക്ക് സെര്ച്ച് ചെയ്ത് കാര്യങ്ങള് എടുക്കാം ശരി എന്തായാലും ശരി ഫോണില് എന്ത് വേണേലും നടക്കാം പോരാഞ്ഞ് ഇപ്പോൾ വീഡിയോ കോള് വിളിക്കാന് വേണ്ടി ക്യാമറകള് ഉണ്ട് ഫോണ് എടുക്കാന് അപ്പോൾ പുറത്ത് പോയിട്ട് വരികയാണേൽ വീഡിയോ കോള് വിളിക്കുവ എന്നേനും ഇവിടെ നമുക്ക് ഞമ്മടെ റൂമില് ഇരുന്നിട്ട് വേറൊരാളെ വിളിക്കാന് കൂടി പറ്റും ഫോണില് അതേ സംവിധാനം ഉള്ളതുകൊണ്ട് വളരെ ഉപകാരമാണ് ഇപ്പോൾ വയസായി ഇരിക്കുവാണേലും ശരി ഇപ്പോൾ നാട്ടില് ഇല്ലാത്തവര്ക്കാണ് പറഞ്ഞാൽ ഏറ്റവും ഇത് അപ്പോൾ പുറത്ത് പോയി നിന്ന് ജോലി ചെയ്യുന്നവര്ക്കാണെങ്കിൽ എന്താണ് സ്വന്തം വീട്ടുകാരെ കാണണം പറഞ്ഞാൽ അവര് വീഡിയോ കോള് ചെയ്ത് വിളിച്ചു കാണാം നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ ഫോണ് അവരുടെ ഏതു ഫോണായാലും ശരി നല്ല ഫോണ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പോൾ ആവശ്യമുള്ള സാധനമായി വരികയാണ് ഫോണ് ആദ്യം ഇപ്പോൾ ഫോണ് ഇല്ലാതെ ഒരു സാധനവും ഇല്ലാന്നാണ് ഇപ്പം പറയല് അപ്പോൾ ഫോണിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് എനിക്ക് ഫോണ് എന്താണ് ഫോണ് ഇന്റര്നെറ്റ് എന്ന് പറഞ്ഞാല് എന്തും പുറത്ത് നിന്ന് നടക്കുന്ന കാര്യങ്ങള് ആണേലും ഇപ്പോൾ നമുക്ക് ഫോണില് ഇരുന്നു കാണാം ഫോണില് വഴികളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഫോണിന് ഫോണ് എന്ന് പറഞ്ഞാൽ നല്ല സാധനം തന്നെയാണ്